ഇപ്പം നമ്മടെ കേരളത്തിലെ പ്രധാന സാംസ്കാരികവും ചരിത്രപരവുമായിട്ടുള്ള ലാന്ഡ് മാര്ക്കുകളും കാര്യങ്ങളും എന്തൊക്കെയാന്ന് വച്ചിട്ടുണ്ടെങ്കില് അതുപോലെ സൈറ്റുകള് കാര്യങ്ങള് ഏതൊക്കെയാന്ന് വച്ചിട്ടുണ്ടെങ്കില് നമുക്കൊരുപാടുണ്ട് ക്ഷേത്രങ്ങള് ഒരുപാടുണ്ട് കോട്ടകളുണ്ട് കൊട്ടാരങ്ങളുണ്ട് മ്യൂസിയങ്ങള് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങള് നമുക്കിവിടെയുണ്ട് പിന്നെ തിരുവന്തപുരത്തെ മ്യൂസിയം അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഫേമസ് ആയിട്ടുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ബോള്ഗാട്ടി കൊട്ടാരം അതൊക്കെ നമുക്ക് ഭയങ്കര ഇതാണ് പിന്നെ മെയിനായിട്ടെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു പൂരമാണ് തൃശൂര്പൂരം തൃശൂര്പൂരം എന്ന് വച്ചിട്ടുണ്ടെങ്കില് ഒരുപാട് ആനകളും കാര്യങ്ങളും ഒക്കെ വന്നിട്ട് അതായത് വലിയ ഇതാന്ന് ആള്ക്കാര്ക്ക് പോലും തിങ്ങി അതായത് ആള്ക്കാര് നിറഞ്ഞിട്ട് തിങ്ങി നിന്നിട്ട് അതായത് മര്യാദയ്ക്ക് കാണാന് പറ്റാത്ത ഒരു അവസ്ഥ വരുകയാണ് കാരണം എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അമ്പലത്തിന്റെ ഉള്ളിൽ നിന്ന് ആന ഇറങ്ങി വരുന്നതും അങ്ങനെയുള്ള പല പല പൂരം ചടങ്ങുകളും അതുപോലെ തന്നെ വെടിക്കെട്ട് അതൊക്കെയാണ് മെയിനായിട്ട് തൃശൂര്പൂരത്തിലുള്ളത് അത് കാണാന് തന്നെ ഒരുപാട് ആള്ക്കാര് അതായത് കേരളത്തിലെ എല്ലാരും തൃശൂരിലേക്ക് പോകുന്ന ഒരു ഇത് ഉണ്ട് അപ്പം നമുക്ക് ഏറ്റവും വലിയ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു പൂരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃശൂര്പൂരം തന്നെയാണ് അപ്പം അത് മെയിനായിട്ടുള്ള ക്ഷേത്രോത്സവമാണ് തൃശൂരില് നടക്കുന്നത്